ഇപ്പോൾ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുവെ എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ അവർ അവരുടേതായ നേട്ടങ്ങൾക്ക് വേനണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ റോഡിലൊക്കെ ആണെങ്കിൽത്തന്നെ എ ഐ ക്യാമറ പോലുള്ള സർക്കാരിനു പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽതന്നെ അവർ എന്താ പറയുക ഓരോ വീട്ടമ്മമാർക്കും രണ്ടായിരം രൂപ വച്ചൊക്കെ കൊടുക്കുക അങ്ങനത്തെ പദ്ധതികളൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ കേരളത്തിലാണെങ്കിൽ എല്ലാ എല്ലാ പാർട്ടിക്കാരും അവർക്ക് പൈസ കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ ജനങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പിന്നെ പൊതുവെ എന്താ പറയുക ഓ അവർക്ക് അവരുടേതായ കാര്യം മാത്രമാണ് നോക്കേണ്ടത് പൊതുവെ ഇപ്പോൾ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കണമെന്നുള്ളൊരു രീതിയിലൊന്നുമുള്ള പ്രവർത്തനങ്ങളല്ല ഇപ്പോൾ ഉള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുൻപോട്ട് അവർ നീക്കിക്കൊണ്ടുപോകുന്നത്